കൃഷി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിലൊരു ആ ആത്മസംതൃപ്ത്തിയെന്നൊക്കെ പറയില്ലേ അതുപോലെയുള്ള ഇപ്പം ഭയങ്കര ഇഷ്ടപ്പെട്ടു തന്നെയാണ് ചെറുപ്പം കാലം തൊട്ടെ എനിക്ക് കൃഷി കാരണം എനിക്ക് ഞാൻ ഒരു എൻ്റെ കുടുംബം പറഞ്ഞാൽ കർഷക കുടുംബം തന്നെയാണ് കുറച്ച് പാടവും കാര്യങ്ങളൊക്കെയുണ്ട് അതുപോലെ തോ തോട്ടങ്ങളുണ്ട് അപ്പോൾ അവിടെ ജനിച്ച് വളർന്നത് കൊണ്ടാണ് കൃഷി ഭയങ്കര ഇഷ്ടമാണെനിക്ക് പച്ചക്കറികളാണെനിക്ക് കൂടുതലിഷ്ടം എന്തെന്ന് വെച്ചാൽ നമ്മൾ ഒരു വിത്ത് കുത്തിയിട്ട് അത് മുളച്ച് വരിക പിന്നെ അതിൻ്റെ ഓരോ സ്റ്റേജായിട്ട് ഇപ്പോൾ ഇല വരും പിന്നെ കുറച്ചും കൂടി വരിക രണ്ട് മൂന്ന് ഇലയാകും പിന്നെ അതിൽ കായ് വരും പൂ പൂ വരും കായ് വരും ഇതൊക്കെ ഇങ്ങനെ കണ്ടു കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എന്താ പറയുക മനസ്സിന് ഒരു നല്ലൊരു സന്തോഷമാണ് ഓരോ ദിവസം അതിലിങ്ങനെ ഉണ്ടാവണ് അപ്പോൾ തക്കാളിയാണ് പറഞ്ഞ് കഴിഞ്ഞാൽ ഒരു നല്ലൊരു രീതിക്കത് വളർന്ന് വരും നല്ല അത് കാണും തന്നെ ഒരു ഇപ്പോൾ നമ്മൾ നോക്കിയാൽ നിൽക്കുമ്പോൾ ഒരു നമ്മളുടെ അടുത്ത് എന്തെങ്കിലും പറയണപോലെയൊരു ഫീലിങ്ങൊക്കെയാണ് ഉണ്ടാകും നമ്മളെ കാണുമ്പോ ഒരു നമുക്കത് കാണുമ്പൊൾ നമുക്കൊരു മനസ്സിന് ഭയങ്കര സന്തോഷമുണ്ടാകും അതിൽ പൂ വരിക തക്കാളി അല്ലെങ്കിൽ കായ് വരിക എന്നൊക്കെ പറയുമ്പോൾ അത് കാണുമ്പം തന്നെ നമുക്ക് മനസ്സിന് ഭയങ്കര ഒരു കുളിർമ്മ പോലെയാണ് അത് പിന്നെയെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരു പൂ പൂവൊക്കെ ചീയുമ്പോഴും നല്ല രസമാണ് എല്ലാറ്റിനും നമ്മൾ കൃഷി ചെയ്യണമെന്ന് പറഞ്ഞാൽ മനസ്സിന് ഭയങ്കര സന്തോഷം കിട്ടാവുന്ന ഒരു കാര്യമാണ്